ആ ഹലോ ഗുഡ് മോർണിങ് സാർ സാർ എന്റെ പേര് നിൽസാന്നാണ് ഓക്കേ സാർ ഓക്കേ സാറിപ്പോവിടെ കേരളത്തിൽ ഇങ്ങനെ എന്തൊക്കെ കാണാനാണ് ആഗ്രഹിക്കുന്നത് കുറെ കേട്ടിട്ടുണ്ടാവോല്ലോ നമ്മുടെ കേരളത്തിനേപ്പറ്റീട്ട്

ആ സാറെവിടെയായിരുന്നു നാട് സാർന്റെ കുട്ടിക്കാലവൊക്കെ എവിടെയായിരുന്നു സാറ് നാട്ടിൽ സ്പെന്റ ചെയ്തിരുന്നത് ഓക്കേ സാർനറിയാലോ ആലപ്പുഴേത്തന്നെ ആ ആലപ്പുഴയ്ത്തന്നെ സാറിന് പ്രത്യേകത അറിയാമല്ലോ അവിടത്തെ വെള്ളം വള്ളം കളി കാര്യങ്ങൾ അവിടത്തെ നേച്ചറ് അവിടത്തെ തടാകങ്ങൾ കുറെ കായലൊക്കെയുണ്ട് കായലിൽ നല്ല മീൻ കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഓരോരോ ആ കേര്

നമ്മുടെ ആലപ്പുഴേത്തന്നെ ഉണ്ടല്ലോ കുട്ടനാട് കുട്ടനാടൻ വള്ളം കളി പിന്നെ അതേപോലെ തന്നെ ഓരോരോ കേരളത്തിലെ പല ജില്ലക്കും പല പ്രത്യേകത ആണ് സാറെ അവിടത്തെ ഇപ്പം ഇപ്പോൾ എറണാകുളം വന്ന് കഴിഞ്ഞാൽ അവിടത്തെ രീതിയൊക്കെ വേറെ വ്യത്യാസമാണ് നമ്മുടെ ഓരോരോ പതിനാല് ജില്ലക്കും പതിനാല് ഡിഫറൻറ്റ് വെറൈറ്റി ഓഫ് ടേസ്റ്റ്കളാണ് ഓ ആ അതെ കൊ നമ്മുടെ ഫുഡ്ഡിനെപ്പറ്റി പറയാണെങ്കിൽ നമ്മുടെ മലബാർ സൈഡാണ് സാറേറ്റോം നല്ലത് ഇ ഫുഡ്ഡ് കോഴിക്കോട് ആ ആലപ്പുഴ സൈഡിൽ നമ്മുടെ നമ്മുടെ ബാക്ക് വാട്ടേഴ്സിനാത്തൂന്ന് നമുക്ക് ഫ്രഷായിട്ട് കിട്ടുന്ന മീനും മീൻ പൊരിച്ചതും അതിന്റെ കക്ക ഇറച്ചി അതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് ആലപ്പുഴയിൽ ബാക്കി കോഴിക്കോട് സൈഡ് വന്നുകഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ്ഡ് കാര്യങ്ങൾ അവിടെ ബിരിയാണിയെക്കെ മലബാറി ബിരിയാണി ആ അതെ അതെ സാറ് ഓ സാറിവിടെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത് ഓക്കേ ആ ഓ ആ അതെ അതെ നമ്മളിവിടെ പാലക്കാടാണ് ആ പാലക്കാട് ബോഡറ് പാലക്കാട് പാലക്കാട് നമ്മുടെ തനി ഗ്രാമം കാണാണമെങ്കിൽ പാലക്കാടാണ് സാർ ഏറ്റോം നല്ലത് ഗ്രാമപ്രദേശം ആണ് ഗ്രാമത്തിന്റെ ആ ആ അതെ അതെ ആ അതെ സാർ ഇവിടെ ഇവിടെ തനി നമ്മൾ തനി നാട്ടിൻ പുറംകാരെ കാണണമെങ്കിൽ പാലക്കാട് ആ കൊല്ലങ്കോട് ആ സൈഡ് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ ആ ഒരു പെരുമാറ്റാണങ്കിലും അതേപോലെ തന്നെ അവരുടേതായ രീതികളുമൊക്കെ പക്കാ അവിടെ വണ്ടീടേം കാര്യങ്ങളക്കെ റീച്ച് ചെയ്യാനൊക്കെ കുറച്ച് ഇതാണെങ്കിലും ഇതാണ് നമ്മുടെ പാലക്കാട് സൈ സൈഡ് നല്ലതാണ് ഇതായിട്ട് തനിനാടൻ ഇതായിട്ടാണ് വരുന്നത് ആ അതെ അതെ ഫുഡ്ഡ് കാര്യങ്ങൾ എല്ലാമുണ്ട് നമ്മുടെ കേരളത്തിൽ കാണാത്ത കാര്യങ്ങളായിട്ട് ഒന്നുമില്ല കേരളത്തിൽ കാണാൻ പറ്റിയതായിട്ട് നമുക്ക് ഓരോരോ പതിനാലിതിനും പതിനാല് സവിശേഷതകൾ അതിൻറ്റേതായ വറൈറ്റീസ് ഓഫ് ഫുഡ്ഡാണെങ്കിൽ ഫുഡ്ഡിൻറ്റേതാണെങ്കിൽ പതിനാല് വെറൈറ്റീസാണെല്ലോ സ്ഥലത്തും പിന്നെ കൾച്ചേഴ്സാണെങ്കിലും ഓരോരോ സ്ഥലത്തും ഓരോരോ ഇതാണ് നമുക്കിന്നത് സ്പെഷ്യൽന്ന് പറയാൻ പറ്റില്ല ആ ഓക്കെ താങ്ക് യൂ സാർ